ഇന്ന് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടിയിട്ട് നല്ല ഗുണമേന്മയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് കീടനാശിനി ഉപയോഗിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളുടെ ഉപയോഗം പാടെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഇന്ന് എല്ലാവരും ഈ കീടനാശിനി പ്രയോഗം വളരെയധികം കൂടുതലാണ് ഈ സസ്യങ്ങളിലും അതുപോലെ തന്നെ ഈ പച്ചക്കറികളിലും കണ്ടുവരുന്നത് ഇതിലൂടെ നമുക്ക് മണ്ണും അതുപോലെ തന്നെ ജലത്തിൻ്റെയും എല്ലാം മലിനീകരണം കൂടുതലായിട്ട് കണ്ടു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മണ്ണും ജലവുമൊക്കെ നമ്മൾക്ക് ഈ കീടനാശിനി തളിക്കുന്നതിലൂടെ മലിനമാവുകയും അവയെ അവയുടെ ഗുണമേന്മ നഷ്ടപ്പെട്ട് പോകുകയും ചെയ്യുന്നുണ്ട് കൂടുതലായിട്ടും ഈ ജൈവപച്ചക്കറി അല്ലെങ്കിൽ ജൈവകൃഷിയിലേക്ക് മാറുകയാണെങ്കിൽ ഇതൊരു ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും